എനിക്ക് ബൈക്കില് യാത്ര പോകുന്നതിന് വളരെ താല്പര്യമാണ് ദൂരസ്ഥങ്ങളിലൊക്കെ ബൈക്കില് യാത്ര ചെയ്ത് എത്തുകയെന്ന് പറയുന്നത് എന്റെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതും സ്വന്തമായൊരു ബൈക്കില് യാത്ര ചെയ്യുകയെന്ന് പറയുന്നത് എൻ്റെ ഒരു ലക്ഷ്യവുമാണ് എനിക്ക് ബൈക്കില് ഏറ്റവും കൂടുതൽ സന്ദർശിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീര് ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ തന്നെ ഷിംല കുളു മണാലി തുടങ്ങിയ സുഖവാസകേന്ദ്രങ്ങളൊക്കെ ബൈക്കില് യാത്ര ചെയ്ത് പോയി കാണണമെന്നൊക്കെ എനിക്ക് വളരെയധികം ആഗ്രഹമാണ് ഇന്ത്യയിലെ വേറെ പല സ്ഥലങ്ങളും അതായത് മുംബൈ തമിഴ്നാടു തമിഴ്നാടുമൊക്കെ നമുക്ക് അടുത്തായിട്ട് വരും ആദ്യമാദ്യം ചെറിയ ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളില് പോയി അവിടുത്തെ പ്രദേശങ്ങളൊക്കെ കണ്ട് തിരിച്ചുവന്ന് പിന്നെ പിന്നെ പോകപോകെ നമുക്ക് ദൂരെയുള്ള യാത്രകള് നടത്തണം ആദ്യം നമ്മള് അത്ര എക്സ്പേർട്ട് ആയിരിക്കില്ലല്ലോ ബൈക്ക് യാത്രയിലൊക്കെ അപ്പോള് നമ്മള് സാധാരണ ഒരു എവിടെയെങ്കിലും അടുത്ത ടൗണിലും അടുത്ത പ്രദേശങ്ങളിലുമൊക്കെയല്ലേ കൂടുതലായിട്ട് നമ്മള് ബൈക്കില് യാത്ര ചെയ്ത് പോകാറുള്ളത് അപ്പോള് ഒരു ബൈക്ക് സവാരിയെന്നുള്ള ഒരു അതിനൊരു പ്രാധാന്യം നമ്മളിതുവരെ അങ്ങനെ നൽകിയിട്ടില്ല അപ്പോള് ഇനിയുള്ള സാഹചര്യങ്ങളിൽ നമ്മളീ ബൈക്ക് യാത്രയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കൂടുതൽ കൂടുതൽ ഡിസ്റ്റൻസില് യാത്ര നീട്ടി നീട്ടി ദൂരെ സ്ഥലങ്ങളായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീര് കുളു മണാലി ഷിംല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണണമെന്നൊക്കെ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ എനിക്ക് എൻ്റെയൊരു അഭിപ്രായമാണ് ബൈക്കില് നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് പല പ്രദേശങ്ങളും നമുക്ക് വ്യക്തമായി നമ്മള് ബാക്കിയുള്ള നമ്മുടെ വാഹനങ്ങളില് യാത്ര ചെയ്യുന്നതിനെക്കാളും വ്യക്തമായി നമുക്ക് ഓരോ പ്രദേശങ്ങളും കണ്ടുകൊണ്ടും അവയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടും യാത്ര ചെയ്യാമെന്നുള്ളതാണ് എൻ്റെയൊരു അഭിപ്രായം എല്ലാവർക്കും അതൊരു നല്ല കാര്യമായി തോന്നണമെന്നില്ല പക്ഷെ നമ്മുടെ ഒരിതാണ് അതുപോലെ തന്നെ ചെലവ് മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് ചെലവും നമ്മുടെ ബൈക്ക് യാത്രയ്ക്ക് കുറവായിരിക്കുമെന്നുള്ളതും വളരെയധികം പ്രാധാന്യം നൽകുന്നു ബൈക്ക് യാത്രയ്ക്കെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു എനിക്ക് ഏതെങ്കിലുമൊരു സാഹചര്യം ബൈക്കെടുത്ത് യാത്ര ചെയ്യാൻ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഞാൻ സന്ദർശിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആയിരിക്കും ജമ്മു ആൻഡ് കാശ്മീരില് ബൈക്കില് യാത്ര ചെയ്തെത്തി അവിടുത്തെ പ്രദേശങ്ങൾ കാണുകയും അവയുടെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പണ്ടുകാലം തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതെനിക്ക് ഏതെങ്കിലും തരത്തില് സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും അവിടം പോയി സന്ദർശിച്ച് അവിടെ കാണും അവിടുത്തെ പ്രദേശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ മാറ്റുള്ളവരോട് പങ്കുവെയ്ക്കുകയും ചെയ്യുമെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു